ഞാൻ ഇന്ന് സിറ്റി ഹോട്ടലിൽ നിന്നും ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ആ ഹോട്ടലിൽ എന്തെങ്കിലും പ്രധാനമായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പുതിയതായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കാനായിരുന്നു ബീഫ് വിഭവം തന്നെ വേറെ എന്തെങ്കിലുമുണ്ടെങ്കില് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു ബീഫ് കൊണ്ടാട്ടം അങ്ങനെന്തെങ്കിലൊക്കെ ഇപ്പം സ്വിഗ്ഗിയില് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നിങ്ങൾക്കെന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങളുണ്ടെങ്കിൽ അത് പറയുവാണെങ്കിൽ എനിക്ക് ബീഫ് കൊണ്ടാട്ടം കിട്ടിയാൽ കൊള്ളാമായിരുന്നു